ഹലോ എവെറസ്റ്റ് റെസ്റ്റോറന്റല്ലെ ഓക്കേ അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയത് അല്ലെ അപ്പോൾ അവിടെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു പറഞ്ഞു അപ്പോൾ അതറിയാൻ വേണ്ടി വിളിച്ചതാ ആ അതെ അതെ ആഹാ പിന്നെ

പിന്നെ വേറെന്തൊക്കെ ഐറ്റംസാ ഉള്ളത് വെജിറ്ററിയനിലാണെങ്കിലോ ആ എല്ലാം ഉണ്ടല്ലേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിലേ നമുക്ക് അതായത് നമ്മൾ നാളെ ഈവെനിംഗ് ഒരു പിന്നെ പാർട്ടി ഉണ്ട് ബാച്ലർസ് പാർട്ടി ഉണ്ട് അപ്പോൾ ഈവെനിംഗ് ഒരു ഇരുപത് പേരുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ ഭയങ്കര തിരക്കാണെന്ന് പറയണ കേട്ടു അപ്പോൾ നമുക്ക് ഒരു ഇരുപത് പിന്നെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ആ സീറ്റ് ബുക്ക് ചെയ്താൽ എന്തേലും ഓഫറുണ്ടോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് ആ ഉണ്ടല്ലേ അങ്ങനെ ആണെങ്കിലൊരു ഇരുപത് സീറ്റ് ബുക്ക് ചെയ്യണേ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് വൈകുന്നേരം ആ ഉറപ്പാണ് കൺഫേം ആണ് കൺഫേം ആണ് ആ എന്തെങ്കിലും അഡ്വാൻസ് വേണമെങ്കിൽ ഞങ്ങൾ അയച്ച് തരാം ആ ഓക്കേ ഓക്കേ ഓക്കേ